അത് വരയ്ക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ബിക്കോസ് ഒരാളെ നമ്മൾ നമ്മൾ ട്രൈ ചെയ്യാത്ത ഒരു ഇതാണ് ഇപ്പം മരം കാട് മഴ ഇതൊക്കെ നമ്മള് ട്രൈ ചെയ്ത കാര്യങ്ങള് ആയിരിക്കും കാരണം നമുക്ക് വരക്കാന് കുറച്ച് ഈസിയാരിക്കും പക്ഷേ ഒരാളെന്നു പറഞ്ഞാൽ നമുക്ക് ഓരോരുത്തരും വരയ്ക്കാന് ഓരോരോ ഡിഫറന്സ് ഓരോരുത്തര്ക്കും ഓരോ ഫേസ് ആണ് അപ്പം അത് വരയ്ക്കാന് ഒരുപാട് ബുദ്ധിമുട്ടാണ് ആ അത് വരയ്ക്കാനാണ് കൂടുതലായിട്ട് ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ളത് പിന്നെ ഇതെങ്ങനെയാണ് പരിശീലിക്കുന്നതെന്നു വച്ചിട്ടുണ്ടെങ്കിൽ വരച്ച് വരച്ച് നമ്മള് ഇബ്രൂവ്മെൻ്റ് ചെയ്യുകയാണ് നമ്മുടെ കലയെ നമ്മൾ വരയ്ക്കുന്തോറും വരച്ച് വരച്ച് പഠിക്കുക അങ്ങനെയാണ് പഠിക്കാറ് അല്ലാണ്ട് നമ്മള് ഇപ്പം ആദ്യമായിട്ട് വരയ്ക്കുമ്പോൾ എല്ലാം പെര്ഫെക്ട് ആവണം എന്നില്ല നമ്മൾ വരച്ച് വരച്ചാണ് എല്ലാം സെറ്റ് ആക്കുന്നത് ഇപ്പോൾ അങ്ങനെ ഇമ്പ്രൂവ്മെന്റ് ചെയ്താണ് ഓരോന്നും വരച്ച് സെറ്റ് ആക്കുന്നത്